മലയാളഭാഷ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഇവിടെ സ്ഥലത്ത് നടത്തുന്നുണ്ട് എന്തെന്നുവെച്ചാൽ നമ്മുടെ സ്കൂളുകളിൽത്തന്നെ മലയാള ഭാഷയാണ് മെയിനായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ എന്തിൽ പങ്കെടുക്കുകയാണെങ്കിലും എന്ത് സംസാരിക്കാനാണെങ്കിലും എല്ലാറ്റിനും മാതൃഭാഷയാണ് നമ്മൾ ആദ്യം ഉൾക്കൊള്ളുന്നത് സ്കൂളിലിപ്പോൾ അത്യാവശ്യം വേണ്ടത് മാതൃഭാഷ ഉപയോഗിക്കണം അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടത്തുന്നുണ്ട് അതുപോലെത്തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ ഓഫീസ് കാര്യങ്ങൾക്കാണെങ്കിലും എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും മാതൃഭാഷയായിരിക്കണം എന്താ മുൻഗണന കൊടുക്കുന്നത് കാരണം എന്ത് ഫോമിലാണെങ്കിലും അപ്ലിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിലും മാതൃഭാഷ ഉപയോഗിക്കാനും സംസാരിക്കാനും എല്ലാത്തിനും ഇങ്ങനെയുള്ള മുൻഗണന കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക പരസ്യങ്ങളിൽ നോട്ടീസുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം മാത്രഭാഷക്ക് മുൻഗണന കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടികൾ നമ്മളിവിടെ നടത്തുന്നുണ്ട്